എസ് എൽ ഡ്രൈവിംഗ് സ്കൂളല്ലേ എസ് എൽ ഡ്രൈവിംഗ് സ്കൂളല്ലായിരുന്നോ ആ ആ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡായ കുറച്ച് കാര്യങ്ങള് ചോദിക്കാനായിരുന്നു ആ എനിക്ക് അപ്പം എച്ചും എല്ലും എടുക്കുന്നതിന് എത്ര രൂപയാകുമായിരുന്നു ആ ഹാ സോറി ഞാൻ കുട്ടിക്കാനത്ത് നിന്നായിരുന്നുവല്ലോ ആ ഞാന് എച്ച് തൊട്ട് ഒറ്റയടിക്ക് എടുക്കാനായിരുന്നു പക്ഷേ എനിക്ക് ക്ലാസിൻ്റെ ആവശ്യമില്ല ഞാൻ അത് കാറോടിക്കുന്നതാണ് അപ്പോള് എനിക്ക് എച്ചിൻ്റെ പ്രാക്റ്റീസ് മാത്രം മതി ആ ഞാന് വീട്ടില് കാറുണ്ടായിരുന്നപ്പോള് പഠിച്ചായിരുന്നു ആ വീട്ടില് എക്സ് യു വി അല്ല ആ ബൈക്കായിരുന്നുവല്ലോ

ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാന് പറ്റില്ല ടെസ്റ്റിന് ഓക്കെ ഓക്കെ ഓക്കെ അപ്പം എനിക്ക് ആ അപ്പം എനിക്ക് എച്ചും എട്ടും കൂടെ എടുക്കുമ്പോള് മൊത്തം ടോട്ടല് എമൗണ്ടെത്രയാകും ആ ഇല്ലില്ല ലേണേഴ്സ് എടുക്കണം ആ അതിന് സൈൻ ബുക്കൊക്കെയുണ്ടോ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ

ഓകെ അല്ല എനിക്കൊരു ഡൗട്ടുണ്ട് വണ്ടിയോടിക്കാനറിയാമെങ്കിലോ ഇപ്പം ക്ലാസിന് വരേണ്ട ആവശ്യമില്ലല്ലോ

ആ അതെ ഓക്കെ ആ ഓക്കെ ഓക്കെ

ഞാൻ ഈ ആഴ്ച ഈ ആഴ്ച തൊട്ട് വരാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ സാര് എന്നായിരുന്നു ഓഫീസിലുള്ളത് ഓഫീസ് ടൈമൊന്ന് പറയാമോ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ സാർ എന്നാല് ഞാന് ഞാന് ഈ ഈ തേസ്ഡേ വന്നേക്കാം ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും വന്നേക്കാം ആ ഈ തേസ്ഡേ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ